ഇപ്പോൾ എന്തിനാ ഒരാളെ ഒരാൾക്ക് പട്ടിയുടെ കടി ഏറ്റിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താ ആ കടിച്ച ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് കഴുകുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആ ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ ആ കടിച്ച ഭാഗം ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ട് കഴുകിയാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം സോപ്പ് ഇട്ട് ഒന്ന് കഴുക അഥവാ സോപ്പ് ഇല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒഴുകുന്ന ഒഴുകി കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ഉള്ളിൽ വെച്ചിട്ട് എന്താ പറയാ കടിച്ച ഭാഗം നല്ലോണം കഴുകി ക്ലീൻ ആക്കുക ഇതിനകത്തു തന്നെ കുറെ വിഷം ഒക്കെ അതിൻ്റെ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ ആ കടിച്ച കടിച്ചിട്ടുണ്ടായിരുന്ന ആ വൈറസ് ഒക്കെ കുറെ ഒക്കെ നമുക്ക് എന്താ പറയ റിമൂവ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെ അത്യാവശ്യം കുറെ ഒക്കെ കഴുകുമ്പോൾ തന്നെ കുറെ വൈറസ് ഒക്കെ നമുക്ക് പോയിട്ടുണ്ടാകും പിന്നെ നമ്മൾ പോകേണ്ട ചെയ്യേണ്ടേ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇൻജെക്ഷൻ എടുക്കണം പട്ടി കടിച്ചതിൻ്റെ ഇൻജെക്ഷൻ എടുക്കണം കുറെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താ പറയാ നമ്മൾ ഹോസ്പിറ്റലിൽ എന്തായാലും നിർബന്ധമായിട്ടും പോകണം പോയിട്ട് ഇൻജെക്ഷൻ ഒക്കെ എടുക്കണം ഇൻജെക്ഷൻ എടുക്കും പിന്നെ എന്താ പറയാ അവർ തരുന്ന പോലെ ഇൻഫോർമേഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുവാണ് ഈ ചെയ്യുന്നത്